പ്രാദേശിക വാർത്തകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പള്ളിയിൽ പെരുന്നാൾ വന്നു ആ പെരുന്നാൾ വന്നപ്പോഴത്തേക്കും അത് ഞങ്ങൾ പത്രത്തിലിട്ടു പത്രത്തിൽ പത്രത്തിൽ ഇട്ടു കഴിഞ്ഞൂ അതിലെ പരിപാടികളും ധ്യാനം നടക്കുന്നതിനെക്കുറിച്ചും എല്ലാമാണ് പള്ളിയിലെ എല്ലാ പരിപാടികളെക്കുറിച്ചുള്ള വാർത്ത പാത്രത്തിൽ പ്രാദേശികമായിട്ട് ഞങ്ങൾ കണ്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മനോരമ പേപ്പറാണ് വരുത്തുന്നത് മനോരമ പേപ്പറിൽ പിന്നെ നമ്മുടെ ഉരുൾ പൊട്ടിയതിനെക്കുറിച്ചും പിന്നെ നമ്മുടെ ഈ പരിസരത്ത് ഉരുൾ പൊട്ടിയതും ഉരുൾ പെട്ടാൻ സാധ്യത ഉണ്ടെന്നും മഴ വരുമ്പോഴത്തേക്കും എല്ലാവരും സുരക്ഷിത സ്ഥലത്തേക്ക് കൊണ്ടു എത്തിക്കണവെന്നും പഞ്ചായത്തിൽ നിന്നും വാർത്ത വന്നു പഞ്ചായത്തിൽ നിന്നൊക്കെ ഇങ്ങനെ വാർത്തകൾ വരാറുണ്ട് പിന്നെ അനോൺസ്മെൻറ് ചെയ്തു പോകാറുണ്ട് പഞ്ചായത്തിൽ പറയും ഉരുൾ പൊട്ടാൻ സാധ്യതയുള്ള പരിസരത്തുള്ള എല്ലാവരും അവിടെ നിന്ന് മാറി താമസിക്കണം എന്നൊക്കെ പറഞ്ഞു കൊണ്ട് പിന്നെ അത് പേപ്പറിലിടും മനോരമ പേപ്പറിലാണ് ഞങ്ങൾ വായിക്കുന്നത് പിന്നെ യാദൃഷ്ചികമായിട്ട് ഇടയ്ക്ക് ഞാൻ ദീപിക പേപ്പറും വായിക്കാറുണ്ട് ദീപിക പേപ്പർ ഇടയ്ക്ക് ഞങ്ങൾ വരുത്തുന്നുണ്ടായിരുന്നു ദീപിക പേപ്പറിൽ ഇതുപോലെ ഇതിനെക്കുറിച്ചു നമ്മുടെ ഇപ്പം നടന്ന പെട്ടെന്ന് പെട്ടന്ന് ഇന്ന് തന്നെ ഇന്ന് തന്നെ അമ്പൂര് പള്ളി കഴിഞ്ഞു പോയ പള്ളി കഴിഞ്ഞു രണ്ടു പേര് പോവുകയായിരുന്നു പോയി കഴിഞ്ഞുപ്പത്തേക്കും ഒരു ഓട്ടോയിൽ ഒരു സ്കൂട്ടർ വന്നിടിച്ചു അവർ രണ്ട് മൂന്ന് പേര് ആശുപത്രിയിൽ കൊണ്ടുപോയി ആശുപത്രിക്ക് കൊണ്ടുപോയി അവർക്ക് വേണ്ട ചികിത്സകളൊക്കെ ചെയ്യാാനുള്ള എക്സറേ എടുക്കുകയും സ്കൻ ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്തെന്നുള്ള വാർത്ത അറിഞ്ഞു പിന്നെ യാദൃശ്യമായിട്ട് ഞാൻ നോക്കിയപ്പഴത്തേക്കും അതിനകത്ത് പിന്നെ അവിടെ അവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് അതായത് ആ പഞ്ചായത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ജീപ്പ് ആക്സിഡൻ്റ് ഉണ്ടായി ജീപ്പ് ആക്സിഡൻ്റ് പിന്നെ ഇങ്ങനെ ജീപ്പ് ചെരിഞ്ഞു മറിയാറായി വന്നപ്പോഴത്തേക്കും ജെ സി ബി കൊണ്ടു വന്നു അതെടുക്കുകയും എല്ലാം ചെയ്തു പിന്നെ ഈ ഇടയ്ക്ക് പിന്നെ പിന്നെ ഞങ്ങൾ പിന്നെ അവിടെ രണ്ട് മൂന്ന് പിള്ളേര് വെള്ളത്തിൽ വീണു മരിക്കുകയും ആറ്റിൽ വീണു മരിക്കുകയും മരിച്ചെന്നൊക്കെയുള്ള വാർത്ത ഞങ്ങൾ കേട്ടു പിന്നെ വാർത്തകൾ കേട്ടു കഴിഞ്ഞു എപ്പോഴും ഇതിനെക്കുറിച്ചുള്ളതൊക്കെ വാർത്തകളെ ഉള്ളു പിന്നെ അടുത്ത് വേറെ പിന്നെ അവിടെ വേറെ തൊട്ടടുത്ത് വേറൊരു പള്ളിയിൽ പെരുന്നാളാണെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇത് വാർത്ത ഞങ്ങൾ പേപ്പറിൽ കണ്ടൂ മനോരമ പേപ്പറിലായിരുന്നു കണ്ടത് പിന്നെ ദീപിക പേപ്പറിലാണ് നമ്മുടെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എഴുതുന്നത് ദീപിക പേപ്പറിൽ കണ്ടായിരുന്നു പിന്നെ ഇതുപോലെ പെരുന്നാൾ നടത്താൻ പോയ ഇരുപത്തി ജനുവരിയിൽ പെരുന്നാളാണ് എന്നു പറഞ്ഞു പിന്നെ അടുത്ത വേറെ രണ്ടു മൂന്ന് പള്ളികളുണ്ടായിരുന്ന രാജേരി പള്ളി അവിടെ പെരുന്നാളും കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ടെന്നും എല്ലാം വാർത്തകളെല്ലാം ഞങ്ങൾ ഞാൻ കേൾക്കാൻ ഇടയുണ്ടായി പിന്നെ ഇപ്പം ഞാൻ ഈ വന്നവഴിക്ക് ഇന്ന് തന്നെ ഞാൻ വന്ന വഴിക്ക് പിന്നെ ഇവിടെ പഞ്ചായത്ത് കഴിഞ്ഞു ഇങ്ങോട്ട് വന്ന വഴി തന്നെ കണ്ടു അവിടെ ഒരു പിന്നെ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു നടന്ന് പോയ ഇവിടെ തന്നെ യാദൃശ്ചികമായിട്ട് പെട്ടെന്നൊരു പിന്നെ ബൈക്ക് വന്നു അങ്ങരെ മറിച്ചിട്ടിട്ട് അങ്ങ് പോയി മറിച്ചിട്ടിട്ട് പോയപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം അങ്ങോട്ട് ഓടിക്കൂടി അവരെ ആശുപത്രിയിലേക്ക് തൊട്ടടുത്തുള്ള ആശുത്രിയിലേക്ക് കൊണ്ടുപോയി ഫസ്റ്റ് എയ്ഡ് ചെയ്തു പിന്നെ പിന്നെ ഓരോ പരിപാടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതെന്നെ പെരുന്നാളാണ് മെയിനായിട്ടുള്ളത് നടത്തുന്നത് പിന്നെ ഓരോ പ്രോഗ്രാമുകളും എല്ലാം ഇടയ്ക്ക് നടത്തുന്നുണ്ട് പിന്നെ ഒരു ക്യാമ്പ് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പ് യൂത്തിലെ പിള്ളേർക്ക് പിന്നെ ദീപിക പേപ്പറിൽ കണ്ടായിരുന്നു യൂത്തിലെ പിള്ളോരുടെ ക്യാമ്പ് അവർക്ക് ഇതിൻ്റെ പ്രോഗ്രാം നടക്കുകയാണ് എന്നും പറഞ്ഞു കൊണ്ട് കണ്ടായിരുന്നു പിന്നെ ഇപ്പം ഈ രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് പല പല പരിപാടികൾ നടന്നു കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞു പിന്നെ ഇത് ഇവിടെ മഴ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു പേപ്പറിൽ കണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കണ്ടായിരുന്നു അവിടെ ഈ മരങ്ങൾ കാറ്റ് വല്ലാത്ത കാറ്റ് വല്ലാത്ത കാറ്റെല്ലാം ഉണ്ടായി ഭയങ്കരമായിട്ട് കാറ്റ് വീശി മരങ്ങളെല്ലാം കമ്പിയടെ മണ്ടയിൽക്കൂടിയെല്ലാം വീണു ആൾക്കാരുടെ ജീവിതത്തിന് അപകടകരമായിട്ട് നിൽക്കുകകയാണെന്ന് പറഞ്ഞുകൊണ്ട് പേപ്പറിൽ വായിച്ചു യാദൃചികമായിട്ട് രാവിലെ ഞാൻ പേപ്പർ എടുത്ത് നോക്കിയപ്പം അതിൽ കണ്ടു അത് കാരണം നമുക്ക് അതിനെ അത് കാരണം നമുക്ക് അതിനെക്കുറിച്ചു ഒരു അറിവ് പേപ്പറ് വായിക്കുന്നത് കൊണ്ട് നമുക്ക് ഒത്തിരി ഒത്തിരി അറിവുകൾ കിട്ടുകയാണ് ഒത്തിരി പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അത് കാരണം